പതിനാല് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പത്തൊമ്പത് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏഴ് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പതിനാല് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത്